എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ രണ്ട് പേരും ഡിഗ്രി കഴിഞ്ഞവരാണ് അതേപോലെ എൻ്റെ അച്ചച്ചൻ അമ്മമ്മ എന്ന് പറയുമ്പോൾ അവര് അഗൻവാടി ടീച്ചറായിരുന്നു ഒരാൾ അതേപോലെ തന്നേ ഒരാൾ ബേങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാൽ അവരുടെ ചെറുപ്പകാലത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം പല ഇന്നത്തേപ്പോലെ എല്ലായിടത്തും വിദ്യാഭ്യസ സ്ഥാപനങ്ങൾ അന്നില്ല അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നേ ഹയർ സെക്കണ്ടറി എജ്യുക്കേഷൻ എന്നും അവർക്കൊരു വെല്ലുവിളിയായി തന്നേ ആയിരുന്നു നിന്നിരുന്നത് കാരണം വളരെ കുറവ് ഹയർ സെക്കണ്ടറി സ്കൂളുകളായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നേ വളരേ ദൂരം യാത്ര ചെയ്താണ് ഓരോരുത്തരും അവരുടെ സ്കൂളുകളിൽ എത്തിയിരുന്നതും അവരുടെ ഹയർ സെക്കണ്ടറി വിദ്യാഭ്യാസം കമ്പ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും ആ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ഇന്ന് ഉള്ളതുപോലെ കൂടുതലായിരുന്നില്ല വളരെ കുറവായിരുന്നു അതുപോലെതന്നെ എത്തിപ്പെടാനുള്ള സൗകര്യവും അന്ന് വളരെ കുറവായിരുന്നു ഇതൊക്കെയാണ് അന്ന് അവര് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു കാരണം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കാരണം ഗവണ്മെന്റ് സ്കൂളുകളായാലും പ്രൈവറ്റ് സ്കൂളുകളായാലും നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തേടി ഒരു പാട് യാത്ര ചെയ്യേണ്ടി വരുന്നില്ല അതുപോലെത്തന്നെ അവർക്ക് ബുദ്ധിമുട്ടും നേരിടേണ്ടി വരുന്നില്ല കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണവും അവരുടെ വിദ്യാഭ്യാസ രീതികളും മാറിക്കഴിഞ്ഞു